ഹലോ ആ അതേ പറഞ്ഞോളൂ ആ ഓക്കേ പതിനാലാം തീയതി ആ ഓക്കേ നിങ്ങൾ തീയതി ഒക്കെ കുറിച്ചതാണോ

ആ ഓക്കേ അപ്പോൾ സമയം ഇതൊക്കെ നോക്കിയതാണോ ഇതിൻ്റെ കല്യാണത്തിൻ്റെ നമ്മളടുത്ത് ഇപ്പം അത് നോക്കുന്ന ശാന്തി കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല അപ്പം നിങ്ങൾ പുറത്തുനിന്ന് എവിടെനിന്നെങ്കിലും നോക്കിച്ചിട്ട് ഏകദേശം സമയം നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളോട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം പതിനാലാം തീയതി ഇപ്പം നമുക്ക് വേറെ പ്രോഗ്രാംസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുക എന്നിട്ട് സമയവും കാലവും നോക്കിയിട്ട് നമ്മളോട് പറയുക വധുവിൻ്റെയും വരൻ്റെയും ആധാർ കാർഡും കാര്യങ്ങളും എത്തിക്കണം കാരണം നമുക്കിത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉള്ളതിനാൽ അത് എത്തിക്കേണ്ടതാണ് പിന്നെ ജാമ്യം നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും ഒരു ഇതും വേണ്ട പ്രൂഫുകളൊന്നും ആവശ്യമില്ല അച്ഛനും അമ്മയും ആയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ല പ്രായപൂർത്തി ആയവർ ആയിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ

ഇല്ലില്ല പിന്നെ താലി അങ്ങനെന്തെങ്കിലും പൂജിക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസമേ ഇവിടെ എത്തിക്കണം താലി അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെനിന്നെങ്കിലും കൊടുത്ത് പൂജിക്കുവാണെങ്കിൽ അങ്ങനെ അത് കുഴപ്പമൊന്നും ഇല്ല ശേഷം ഇപ്പോൾ സമയം നോക്കിയിട്ട് എപ്പോഴാണോ മുഹൂർത്തം അതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും വധുവും വരനും അമ്പലത്തിൽ എത്തിയിരിക്കണം

അതൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയുവാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്ത് തരും പിന്നെ ഇവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു അറിയുമോ ആ നമുക്ക് അയ്യായിരം രൂപ വെച്ചിട്ടാണ് ഒരു കല്യാണത്തിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ആ പിന്നെ നിങ്ങൾ അഡീഷണൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളോട് എത്തിക്കാൻ പറയുവാണെങ്കിൽ അതിൻ്റ പൈസയും നിങ്ങൾ തരേണ്ടി വരും നമ്മളിവിടെനിന്ന് തുളസി മാല മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും മാലയോ ബൊക്ക ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ് ആ ഡേറ്റ് പതിനാലാം തീയതി അല്ലേ പറഞ്ഞത് നിങ്ങൾ ഏത് ഡേറ്റ് ആണ് അന്നത്തെ മുഹൂർത്തം കൂടി നോക്കുക ആ എന്നാൽ ആ പതിനാലാം തീയതി വരുന്ന നല്ല സമയം നോക്കിയിട്ട് വിളിക്കുക ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്പം പറഞ്ഞു തരാം